ചിത്രരചന എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചിത്രരചനയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമെന്നു പറയുന്നത് ഞാനുപയോഗിക്കുന്ന പേപ്പറും അതു പോലെ തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്റിലുള്ള പെൻസിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ റ്റൂ ബി അതു പോലെ തന്നെ ഫോർ ബി എയിറ്റ് ബി അങ്ങനെ പല കട്ടികൾ വരുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള പെൻസിലുകൾ നമുക്ക് ലഭ്യമാണ് പക്ഷെ അതു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പേപ്പറിൽ പടരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിനേ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പടങ്ങൾ കാണും നമ്മൾ പണ്ടത്തെ കുഞ്ഞിലേക്ക് നോക്കുമ്പോൾ നമ്മളച്ചടിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ വരക്കാൻ പരിശ് പരിശീലിക്കുകയെന്നു പറഞ്ഞാൽ നമുക്കങ്ങനൊരു താല്പര്യമുണ്ടെങ്കിൽ നമ്മളാദ്യമേ ഒരു പെൻസിലും പേപ്പറെടുത്ത് നമ്മളാ റഫ്ഫായിട്ട് വരച്ചു നോക്കുക റഫ്ഫായിട്ടിപ്പം നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് വരക്കാൻ അറിയത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ റഫായിട്ട് വരച്ചു നോക്കുക നമ്മളൊരു ജസ്റ്റ് ഒരൗട്ട്ലൈൻ കൊടുക്കുക ആ ഒരൗട്ട്ലൈനിൽ കൂടി നമ്മൾ നന്നായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾക്കൊരു റഫ് സ്കെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിൽക്കൂടി നന്നായിട്ട് വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുദ്ദേശിക്കുന്ന രൂപം കിട്ടും അപ്പം നമുക്കൊത്തിരി സമയം ചിലവാകത്തില്ല അതു പോലെ നമ്മുടെ പേപ്പർ പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേസ്റ്റാകത്തില്ല നമുക്കൊത്തിരി ഉപകാരപ്രദമാണ് ചിത്രരചനയെന്നുള്ളത് ശരിക്കൊരു കലയാണ് നമ്മുടെ സമയോ സാഹചര്യം പോലിരിക്കും നമുക്ക് താത്പര്യമുള്ള കാര്യമാണെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക വേണ്ടിയിട്ട് പറ്റും ഇപ്പം വെല്ലുവിളിയെന്നു പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ നമ്മുടെ സമയം സാഹചര്യമെന്നു പറയുന്നത് വളരെ പ്രശ്നമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ സമയം കണ്ടെത്തുക നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സ കാര്യങ്ങളെന്നു പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ നമുക്കേറ്റവും എളുപ്പമുള്ള രീതിയിലങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശ്രമിക്കുക